ഞങ്ങളുടെ നാട്ടിൽ മൃഗങ്ങളെ പൊതുവായിട്ട് വാങ്ങിക്കുന്നത് നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കൃഷിവകുപ്പിൽ നിന്ന് കൃഷി ഓഫീസിൽ നിന്ന് നമുക്ക് മൃഗങ്ങളെ ലഭ്യമാണ് അതുമാത്രമല്ല വെറ്റിനറി ആശുപത്രിയിൽ നിന്നും മൃഗാശുപത്രിയിൽ നിന്നും മൃഗങ്ങളെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അതുമാത്രമല്ല നമുക്ക് നമ്മുടെ അയൽപ്പക്കത്ത് നിന്നുള്ള മൃഗങ്ങൾ പ്രസവിച്ച് പെറ്റ് പെരുകുമ്പോളേക്കും അവിടുന്ന് നമുക്ക് വില വിലയ്ക്ക് നമുക്ക് മൃഗങ്ങളെ വാങ്ങിക്കാവുന്നതാണ് പൊതുവെ ഒരു ഒരു പ്രായം ചെന്ന ഒരു ആടിൻ്റെ വിലയെന്നതിലൂടെ ആറായിരം അയ്യായിരം രൂപ തൊട്ട് വരും അത് കുട്ടികൾക്ക് രണ്ടായിരം രൂപയൊക്കെ ആയിരിക്കും അത്യാവശ്യം ഒരു രണ്ട് മാസമൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ തൊട്ട് അത്രയും രണ്ടായിരം രൂപ തൊട്ട് വരും ആടിൻ്റെ വില അത്രയാണ് നമ്മുടെ നാട്ടിൽ അത് മാത്രമല്ല നമ്മൾക്ക് വളരെ നല്ലപോലെ സമ്പാദിക്കാനും നമ്മുടെ മനസ്സിനും ഒരു സന്തോഷം തരുന്ന മറ്റൊരു കാര്യം ഇല്ല മൃഗ വളർത്തലിനേക്കാൾ കൂടുതൽ നമുക്കൊരു സംതൃപ്തി നൽകുന്ന മറ്റൊരു തരത്തിലും ഉള്ള ഒരു ഒരു സംരക്ഷണമില്ല മൃഗ വളർത്തലെന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ് കാര്യം ഞങ്ങൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തിരിച്ച് വന്നിട്ട് ആടിനെ അഴിച്ച് കെട്ടാനും അതിൻ്റെ വെള്ളം കൊടുക്കാനും അതിൻ്റെ കാര്യങ്ങൾ നോക്കാനുമൊക്കെ ഞങ്ങൾക്ക് വളരെ താൽപ്പര്യമായിരുന്നു ഞാൻ സമ്പാദിച്ചു എന്ന് പറയണതിൽ ഒരു ഒരു വളരെ വലിയ സമ്പാദ്യപരമായിട്ടൊന്നും ഇല്ലന്തേലും പണമായിട്ട് സമ്പാദിക്കുന്നത് വളരെ കുറവാണെന്നാലും മനസ്സിനൊരു സന്തോഷം ലഭിച്ചതാണേറ്റവും വലിയ സമ്മാനം സമ്പാദ്യമെന്ന് പറഞ്ഞാൽ എന്നിരുന്നാൽ കൂടി ആടുകളെയൊക്കെ പെറ്റു പെരുകുമ്പം അതിനെ വിറ്റ് കുറച്ച് പൈസയൊക്കെ നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷകരമാണ് സന്തോഷവതിയാണ് മൃഗവളർത്തലിൽ നിന്നും എന്തെങ്കിലുമൊക്കെയൊരു ഒരു രൂപ സമ്പാദിക്കാൻ സാധിച്ചതിലും മൃഗങ്ങളെ എങ്ങനെയാണ് എവിടെ നിന്നാണ് വാങ്ങണത് എന്ത് എങ്ങനെയാണ് അതിനെ സംരക്ഷിക്കേണ്ടതെന്നൊക്കെ ഒരു ഒരു ഒരു ബോധ്യം ഇതിൽ നിന്ന് ലഭിച്ചു എനിക്ക് എൻ്റെ വീട്ടിൽ ആട് ഉണ്ടായിരുന്നു പശുവിനെ ഇടയ്ക്ക് വളർത്തിയിട്ടുണ്ട് ഇപ്പോഴില്ല പിന്നെ വളർത്തിയുള്ള മൃഗമെന്ന് പറഞ്ഞാൽ പശു ആടുമല്ലെങ്കിൽ പിന്നെ പക്ഷികളുടെ കൂട്ടത്തിൽ കോഴീനെ വളർത്തിയിട്ടുണ്ട് ഇത്രയുമാണ് എൻ്റെ വീട്ടിൽ ഞാൻ വളർത്തിയിട്ടുള്ള മൃഗങ്ങൾ